അതിൻറ്റെയൊരു അതിന് അതിന് നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഞങ്ങള് ചെയ്യുന്നത് കാരണം

എനിക്കെന്റെ സൗകര്യമനുസരിച്ച് ബുക്ക് ചെയ്യാനോ എനിക്ക് വരുന്ന ദിവസം ഏകദേശം ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് എനിക്കെന്റെ കാര്യങ്ങളതനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് താ ഇതുപോലുള്ള നല്ല ഇനീഷിയേറ്റിവ്സിനെ ഞങ്ങള് അഭിനദ്ധിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ആസ് എ ഒരു ഉപഭോക്താവ് എന്ന നിലയില് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വൺ ഈ ഗ്യാസ്സ് കൊണ്ടു വരുന്നൊരു സമയം കൂടിതിലുൾപ്പെടുത്തുകയാണെങ്കില് കുറച്ചും കൂടെ നന്നായിരുന്നു അപ്പം കുറച്ചും കൂടെ കൃത്യത ഉണ്ടാകുമായിരുന്നു ഏത് സമയത്ത് കറക്ടായിട്ട് വരും എന്നുള്ളത്